ഇപ്പോൾ എനിക്ക് വളർത്തു മൃഗങ്ങളെ ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയുണ്ട് രണ്ട് പശുക്കളുണ്ട് അപ്പോൾ ഇവ ഇതിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾ പക്ഷികൾ അങ്ങനത്തെ മൃഗങ്ങളെ ഒക്കെ വളർത്താൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഇടപഴകുന്നതിന് അനുസരിച്ച് നമുക്ക് എന്താ പറയുക നമ്മുടെ സമയം പോവും പിന്നെ നമുക്ക് നമ്മളെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പട്ടി നല്ല രീതിയിൽ സ്നേഹിക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അതിന് എന്താ പറയുക ഒരു ആകെ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചോറ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏത് ജീവിയാണെങ്കിലും നമ്മൾ അതിന് ഒരു കുറച്ച് ഫുഡ് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞാൽ ഏത് ജീവിയാണെങ്കിലും നമ്മൾ അതിനെ പിന്നെ കണ്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമ്മളെ അത് വാലാട്ടി കാണിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യും അപ്പോൾ മനുഷ്യനെ കാട്ടിലും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടം